വീട്ടുമുറ്റത്തേക്കോ പൂന്തോട്ടത്തിലേക്കൊക്കെ പക്ഷികളെ അകർഷിക്കുന്നതിന് പിന്നെന്നെച്ച്ട്ട്ണ്ടങ്കില് നമ്മക്കിപ്പം അതായത് ചില പക്ഷികള് ഇപ്പോൾ നമ്മളിപ്പോ ഞാനൊര് ഇൻസ്റ്റാഗ്രാമില് കണ്ടിട്ട്ണ്ടായിരുന്നു ഒരു ചേട്ടനും ചേച്ചിയും അതായത് ഒരു ത അതായത് ഒരു ദിവസം ഒരു തത്ത വന്നു അപ്പോൾ അവരെന്തെയ്തു കുറച്ച് നെല്ലോ അരിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തത്തക്കിട്ട് കൊടുത്തു അപ്പോൾ പിന്നെ പിന്നെന്നെച്ച്ട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേപോലെ അത് വന്നു അപ്പം അവര് കുറച്ച് കൂടുതല് ഇട്ട് കൊട്ക്കാൻ തുടങ്ങി ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് തത്തകള് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറിലധികം തത്തകളുണ്ട് അപ്പോൾ ഒരു ദിവസം അതിന് അതായത് ചെറിയൊരു പിന്നെ പൈപ്പിൻ്റെത് മുറിച്ചിട്ട് അതില് പിന്നെ ഇതിലിങ്ങനെ ഫുഡിങ്ങനെ നിരത്തി വെച്ച് അതായത് താക്കളിയോ കാരറ്റോ പിന്നെ അരിയോ അങ്ങനേളളതൊക്കെ വെച്ച് കൊട്ത്ത് ഇഷ്ടം പോലെ തത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോന്നെച്ച്ട്ടണ്ടെങ്കി അതൊക്കെ വലിയ അതായത് വലിയ ഇൻ്ററെസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അതായത് എനിക്കിപ്പോൾ വീട്ട് മുറ്റത്ത് ഇപ്പം നമ്മടെ ചെടിയില് തേൻ കുടിക്കാൻ വരുന്ന ചെറി ചെറിയ കിളികള് അയിനേ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ് നമ്മക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസം തോന്നുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കാക്കകൾക്കൊക്കെ നമ്മളിപ്പോൾ വേനൽകാലത്ത് ഒരു തുള്ളി വെള്ളം വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഫോണിലും കാര്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മളും ഒരു തുള്ളി വെള്ളൊക്കെ വെക്കാറുണ്ട് കാരണംന്നെച്ചാല് നമ്മളെപ്പോലെതന്നെയാണല്ലോ അയ്റ്റങ്ങയ്ക്കും ദാഹി ദാഹവും വിശപ്പ് എല്ലം ഉള്ളതാണല്ലോ